കേരളത്തിലെ പ്രധാന കാർഷിക ഉത്പന്നങ്ങൾ ഏതൊക്കെയാണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപാട് കാർഷിക ഉത്പന്നങ്ങൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിളകൾ തന്നെ പറയുകയാണെങ്കിൽ കാപ്പി കുരുമുളക് ഇഞ്ചി വാഴ അടക്ക അങ്ങനെയുള്ള ഒരുപാട് വിളകൾ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അതുപോലെതന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം സാങ്കേതിക വിദ്യകളിൽ അതുകൊണ്ടുതന്നെ നമുക്ക് കാർഷിക രീതികളിലും പണ്ടത്തെക്കാലത്തൊക്കെ ഇതൊക്കെ കുറെ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതിന്റെ വിളവൊക്കെ വളരെ കുറവാണ് പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കാലക്രമേണ നമ്മുടെ കാർഷിക രീതികളിൽ സാങ്കേതിക വിദ്യകൾ ഒക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം എന്നു പറഞ്ഞാൽ വച്ചിട്ടുണ്ടെങ്കിൽ കൃഷി കാര്യങ്ങളിലൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ് എല്ലാവരും വലിയ വലിയ ജോലികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശത്ത് കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ് ആപ്പോൾ കൃഷിയിലൊക്കെ ഇതാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ കൃഷിയ്ക്ക് ഒക്കെ ആൾക്കാർ പോവുന്നത് വളരെ കുറവാണ് പിന്നെ നമുക്ക് ജലസേചനത്തിന്റെ ഇത് വളരെ കുറവാണ് പിന്നെ യന്ത്രവൽക്കരണമാണ് ഇപ്പോൾ ഒരുപാട് യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് യന്ത്ര വൽക്കരണത്തിന്റെ ഒരു കാലമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ പിന്നെ ഇതിനുതന്നെ ഒരുപാട് പദ്ധതികൾ ഒക്കെ ഉണ്ട് മീൻ കര പദ്ധതി കാരാപ്പുഴ പദ്ധതി പിന്നെ ഉപരിതല ജലസേചന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്